വളരെ വളരെ സന്തോഷമായിട്ടാണ് ഞാനെന്റെ ആദ്യമായിട്ടുള്ള വാങ്ങിച്ചതിൻ്റെ ഗ്രൂമിങ്ങ് പ്രോടക്റ്റിനെക്കുറിച്ച് ഞാനൊരു റിവ്യൂ പറയാന് വേണ്ടി പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യാതൊരു വിധ ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ ഇരിക്കുവായിരുന്നു പക്ഷെ വെളിയിലേക്കു നല്ല രീതിയിൽ സൂര്യന്റെ താപം കൂടി നിൽക്കുന്ന സമയത്തു ഞാന് സണ്സ്ക്രീൻ യൂസ് ചെയ്യുമായിരുന്നു പക്ഷെ സണ്സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾത്തന്നെ മുഖത്തു വല്ലാത്തൊരു ഓയ്ലി സ്കിന്നായതുകൊണ്ട് വല്ലാതെ ചെറിയ ചെറിയ കുരുക്കളും അതുപോലെതന്നെ ചൊറിച്ചിലൊക്കെ വരുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഒരു ക്രീം ഉപയോഗിച്ചതിനു ശേഷം ഞാനുപയോഗിച്ചു തുടങ്ങിയിട്ട് രണ്ടാഴ്ച ആയിട്ടുണ്ട് ഉപയോഗിച്ചതിനു ശേഷം വളരെ വലിയ മാറ്റം തന്നെയാണ് എന്റെ മുഖത്തേക്കു വന്നിട്ടുള്ളത് മുഖത്തുള്ള ചെറിയ ചെറിയ പാടുകളൊക്കെ മാറി പോയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള വശമെന്നു വെച്ചു കഴിഞ്ഞാൽ ഈ ക്രീമുപയോഗിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു സണ്സ്ക്രീൻ ഉപയോഗിക്കേണ്ട എന്നുള്ള കാര്യം തന്നെയാണ് ഈ ക്രീം ഉപയോഗിച്ചതിനു ശേഷം ചിലർ പൗഡർ ഒന്നു നമ്മൾ മുഖത്തേക്കിട്ടു കൊടുത്താല് മാത്രം മതിയാകും ഒരേസമയം ഒരു സണ്സ്ക്രീനായിട്ടും അതുപോലെതന്നെ ഒരു ഫെയര്നസ് ക്രീമായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു ക്രീം തന്നെയാണ് ഞാന് വാങ്ങിച്ചത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് ക്രീമിന് റിവ്യൂ പറയുന്നത് ഇതിന്റെ വേറൊരു നല്ലൊരു വശമെന്നു വെച്ചുകഴിഞ്ഞാൽ ഹിമാലയത്തില് മാത്രം കണ്ടുവരുന്ന ഔഷധ സസ്യങ്ങള് കൊണ്ടു നിര്മ്മിച്ച ഈ ഒരു ക്രീം ഹിമാലയത്തിലെ മുനിവര്യന്മാര് കാലങ്ങളോളം തപസ്സിരുന്നു ഉണ്ടാക്കിയ മരുന്നുകളില് നിന്നും ചില മരുന്നുകള് മാത്രം വേര്തിരിച്ച് ഈ ഈ ചേരുവയായിട്ട് ഈ ഒരു ക്രീമിൽ ചേര്ത്ത് അത് അരച്ചു പിഴിഞ്ഞ് ഉണ്ടാക്കിയൊരായുര്വേദ ക്രീം തന്നെയാണ് ഈ ഒരു ക്രീമെന്നു പറയുന്നത് ഇപ്പംത്തന്നെ നമ്മൾ കടയിലൊക്കെ മാര്ക്കറ്റുകളിൽ പല രീതിയിലുള്ള ആയുര്വേദ ക്രീമുകൾ സുലഭമായിട്ടുണ്ടെങ്കില്പ്പോലും ഇതുപോലുള്ളൊരു ക്രീം ഇതുവരേക്കും എന്റെ ദൃഷ്ടിയില്പ്പെട്ടിട്ടില്ല വളരെ മനോഹരമായൊരു ക്രീം തന്നെയാണത് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് രണ്ടാഴ്ച ആയിത്തുടങ്ങിയിട്ടെങ്കിലും ഇപ്പോൾത്തന്നെയെന്റെ മുഖത്തു വളരെ നല്ലൊരു തെളിച്ചവും അതുപോലെതന്നെ മുഖമെപ്പോഴും നല്ല ഫ്രെഷ്ഷായിട്ടിരിക്കുന്നൊരു പ്രകിതീതി പ്രതീതിയാണ് ഇതില്നിന്ന് ഈ ഒരു ക്രീമില് നിന്നെനിക്ക് കിട്ടിയത് വളരെ നല്ല റിവ്യൂ തന്നെയാണ് ഞാനിതുവരേക്കും വാങ്ങിച്ച ഗ്രൂമിങ്ങ് പ്രോടക്റ്റുകളില് വെച്ച് ഏറ്റവും നല്ലൊരു ക്രീം തന്നെയാണ് ഈ ക്രീമെന്നുള്ള കാര്യമാണ് എനിക്ക് പറയാന് വേണ്ടിയിട്ട് ഉള്ളത് ഞാനെന്റെ മറ്റു കൂട്ടുകാര്ക്ക് അതുപോലെതന്നെ എന്റെ ഫാമിലിയിലുള്ള കുടുംബത്തിലുള്ള മറ്റാള്ക്കാര്ക്കും ഈ ഒരു ക്രീം സജെസ്റ്റ് ചെയ്തു കൊടുക്കുകയും അവര് അതിപ്പോള് മറ്റ് ഓണ്ലൈന് വെബ്സൈറ്റുകള് വഴി വാങ്ങുകയും ചെയ്യുകയും അതിന്റെ നല്ല നല്ല റിവ്യൂകള്ക്കൂടിയായി കമ്പനി അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും